ആ ഹലോ എ ആർ റെസ്റ്റോറൻ്റ് അല്ലേ ഞാൻ അഞ്ചാം തിയ്യതി ഒരു ഹോം ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബിരിയാണിയും കുഴിമന്തിയും ഒക്കെയായിരുന്നു വാങ്ങിയിരുന്നത് അപ്പം അതിന് വേണ്ടി അതിന് ഞാൻ വാങ്ങിയപ്പം ബില്ല് വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് അതിന് ഒരു ബില്ല് അവിടുന്ന് ഒന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് എടുത്ത് തരാൻ പറ്റുമായിരിക്കോ ഒരു അത്യാവശ്യത്തിനായിരുന്നു ഒരു ബില്ല് ഒരിടുത്ത് കൊടുക്കണമായിരുന്നു അപ്പം അതിന് വേണ്ടിയായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ബില്ല് എങ്ങനെ എങ്കിലും സംഘടിപ്പിച്ച് തരാൻ പറ്റുമായിരിക്കുമോ ഞാൻ അങ്ങോട്ട് വരാം എങ്ങനെ എങ്കിലും ഒന്ന് ബില്ല് എങ്ങനെ എങ്കിലും ഒന്ന് ഒപ്പിക്കണം അത്യാവശ്യം ആയിരുന്നു ബില്ല് വേണമായിരുന്നു അതിൻ്റെ അപ്പം എങ്ങനെയാണ് ഞാൻ വന്നു വാങ്ങിക്കാം വാങ്ങിക്കാലോ